ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഫെയ്സ് വാഷാണ് അപ്പോൾ ഫെയ്സ് വാഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫെയ്സ് വാഷിന് എന്താണ് പറയുക അത്യാവശ്യം റേയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റേയ്റ്റിങ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ വന്ന് കഴിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇതിന്റെ ഫാ ഫോൾട്ടും കാര്യങ്ങളൊക്കെ കാരണം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഞാൻ നോക്കുമ്പോഴുണ്ട് എന്താണു പറയുക ഫെയ്സ് വല്ലാതെ ഡ്രൈ ആകുന്നുണ്ട് എന്താണു പറയുക വലിഞ്ഞ് സ്കിന്നൊക്കെ വല്ലാതെ വലിയുന്നുണ്ടായിരുന്നു പിന്നെ ഇത് പിംപിൾസിനെയൊക്കെ റെ എന്താ പറയുക റെസ്ട്രിക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് മുഖത്ത് ഇങ്ങനെ പിംപിൾസ് ഒന്നും പോയിരുന്നില്ല അപ്പോൾ അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഇത്രയും ക്യാഷ് ഒക്കെ സ്പെന്റ്റ് ചെയ്തു ഈ സാധനം മേടിച്ചിട്ടും നമുക്ക് നല്ല ബെറ്ററായിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്യാഷിന് വെർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ വേണമെന്നായിരുന്നു അപ്പോൾ നമ്മൾ ക്യാഷ് ഇത്രയും സ്പെൻഡ് ചെയ്തിട്ട് ഈ സാധനത്തിന് നാ യൂസ് അത് ചെയ്തിട്ട് നമുക്ക് ഒരു ഗുണവും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് വലിയ കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നിയത് ക്യാഷിന് പറ്റിയ ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് വെർത്തായിട്ടുള്ള പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഈ ഫെയ്സ് വാഷ് യൂസ് ചെയ്യുന്നതിലും ഭേദം യൂസ് ചെയ്യാണ്ട് ഇരിക്കുന്നതാണെന്നാണ് എന്റെയൊരു നിഗമനം